കുടുമ്പക്കാരുമായി സമയം ചിലവഴിക്കുന്നത് പറയുമ്പോൾ രാവിലെ എണീച്ചാലും അടുക്കള ഷെയർ ചെയ്യുമ്പം എൻ്റെ കുട്ടികളും ഉണ്ടാകും എൻ്റെ ഹസ്ബൻഡും ഉണ്ടാവും എൻ്റെ അ ഭർത്താവിൻ്റെ അമ്മയുമുണ്ടാവും നമ്മളെല്ലാം ഒന്നിച്ചിട്ട് ഇങ്ങനെ ചെയ്താലാണ് രാവിലെ എണീച്ചത് തൊട്ട് തുടങ്ങുന്നതാണ് അടുക്കളയിലെ ഓരോ ജോലികളും ചെയ്യും ഇതിനിടയ്ക്ക് വീട്ടിലെ ദോശ ചുടുന്നു അങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോൾ പിന്നെ വേറെ എന്തെല്ലാമോ ജോലി ഇടയ്ക്ക് ചെയ്യലുണ്ട് ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഇപ്പോൾ ദോശ ചുടുന്നുണ്ടെങ്കിൽ അട അടി അടിച്ച് തോർത്താനും എങ്ങനെയെല്ലാം ചെയ്യലുണ്ട് വീട്ടിൻ്റെ ഇടയ്ക്ക് അതിലെ ഇടയ്ക്ക് എണീച്ചിട്ട് കുട്ടികളെ വിളിച്ചുണർത്തും രാവിലെ അതിൻ്റെ ഇടയിലും കുട്ടികളെ വിളിച്ച് അവരെ സ്കൂളിൽ വിടാനുള്ളതും എന്നിട്ട് ഓരെ അവരെ എല്ലാ ജോലിയും അവരെ സ്കൂളിലെ ടിഫിൻ ഒരുക്കുന്നതും അതെല്ലാം ചെയ്തിട്ട് അവരെ കൂടെ തന്നെ നമ്മളും ഒന്നിച്ചിട്ടിങ്ങനെ കൂടും രാവിലെ അവരെ കുളിപ്പിക്കാനും അതിൻ്റെ ഇടയിൽ അടുക്കളയിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും രാവിലത്തെ ചോറിനും കറിയും ഇതെല്ലാം ചെയ്യലുണ്ട് പിന്നെ എന്നെ കൂടുതലായി എന്നെ സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് നമ്മൾ ഒന്നിച്ചാണ് രാവിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അടുക്കളയിൽ കുട്ടികളും കൂടലുണ്ട് ചിലപ്പോൾ എൻ്റെ കുട്ടികളും കൂടലുണ്ട് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വരുമ്പോൾ എല്ലാം കുറച്ച് ലേറ്റ് ആവും അപ്പം എൻ്റെ കുട്ടികൾ അവർക്ക് ചെറിയ ചായയോ അല്ലെങ്കിൽ സ്നാക്സ് എല്ലാം അവർ ഉണ്ടാക്കി കഴിക്കും അല്ലാതെ അവർ അടുക്കളയിൽ വന്നുകൂട അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല നമ്മളെ വീട്ടിൽ അവർ ആടെ നിന്നിട്ട് തന്നെ ചോദിക്കുക അങ്ങനത്തെ ഒന്നുമില്ല എല്ലാവരും അടുക്കളയിൽ അവരവർക്ക് വേണ്ടത് വന്നിട്ട് ചെയ്യുക ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ലെങ്കിലും വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ അവർ തന്നെ എല്ലാം സ്വന്തം കാര്യം ചെയ്യും ഭക്ഷണം ചൂടാക്കുന്നതോ കഴിക്കാനുള്ളതോ എല്ലാവരും ചെയ്യും പിന്നെ കുട്ടികളും അങ്ങനെ കുടി കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയത്ത് ഞാൻ അടുക്കളയിൽ ഉണ്ടാവും അടുക്കളയിൽ ഉണ്ടെങ്കിലും തിരക്കിനിടയിൽ കുട്ടികൾക്ക് എക്സാം എല്ലാം വരുമ്പോൾ നമ്മൾ കുട്ടികളൊന്നിച്ചിട്ട് തന്നെ ചേരും ചേരും എന്ന് പറഞ്ഞാൽ എൻ്റെ അടുക്കളയിൽ ഇടയിൽ എന്തെങ്കിലും പണിയിൽ ഞാൻ പെ പിള്ളേരുടെ അടുത്ത് നിൽക്കും പിള്ളേർക്കെന്തെങ്കിലും പറഞ്ഞുകൊടുക്കുന്ന ചെയ്യ് ഇടയിൽ ചെയ്തിട്ട് അവർ ആട വായിക്കുന്നുണ്ടെങ്കിലും ഞാൻ അടുക്കളയിൽ ആണെങ്കിലും എൻ്റെ ഒരു ചെവി അവരുടെ അടുത്ത് ഉണ്ടാവും അവർക്ക് പറഞ്ഞ് കൊടുക്കുന്നതും അതെല്ലാം ചെയ്യുന്നുണ്ടാവും പിന്നെ എന്താണ് പറഞ്ഞാൽ എൻറെ ഹസ്ബൻഡും അങ്ങനെ തന്നെ വൈകുന്നേരം വന്നിട്ടും അവരും അങ്ങനെ തന്നെ എന്തെങ്കിലും ജോലിക്കെല്ലാം ചേരും കൂടും എന്ന് പറഞ്ഞാൽ വീട്ടിൽ പച്ചക്കറി മുറിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒഴിവുള്ള ദിവസവും അങ്ങനെ തന്നെ ഒഴിവുള്ള ദിവസം അടുക്കളയിൽ എളുപ്പത്തിൻ്റെ ആണ് കൂടുതൽ ഞങ്ങൾ ചെയ്യാറ് വലിയ വലിയ പാചകങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇവർ ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം എൻ്റെ ഹസ്ബൻഡും ചെയ്യും ഭർത്താവിന്റെ അമ്മയും ചെയ്യും ഭർത്താവിന്റെ അമ്മയും ഞാനും നല്ല കൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നാട്ട് കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും എല്ലാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും പിന്നെയോ പിന്നെ എന്ന് പറഞ്ഞാൽ ഹസ് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക വൈകുന്നേരം വെച്ചിട്ട് എൻ ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നാൽ വീട്ടിൽ ബാക്കി എല്ലാ ജോലികളുമുണ്ടാവും എല്ലാം ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ലീവിൻ്റെ അന്നും ഇപ്പോൾ നമ്മൾ അടുക്കളയിലുണ്ടാവുമ്പോൾ ഒരു ഫോൺ വന്നാൽ ഫോൺ സൈഡിൽ വെച്ചിട്ട് അത് അതിലൂടെ സംസാരിക്കും കുറേ കാര്യങ്ങളും നാട്ടു കാര്യങ്ങളും എൻ്റെ ആരാണ് വിളിക്കുന്നത് അവരോട് ഞാൻ കുറേ നേരം സംസാരിച്ച് നിൽക്കും എൻ്റെ അടുക്കളയിൽ ജോലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോളും ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കൽ അപ്പോൾ ഓരോ നാട്ട് വർത്തമാനങ്ങളും അവർ എൻ്റെ മക്കൾ സ്കൂളിലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുളള അവിടുത്തെ കാര്യങ്ങളും എൻ്റെ ഓഫീസിലത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്പം ഡിസ്കസ് ചെയ്യും കുട്ടികൾ കളിക്കുന്നതും അവരെ ഇതും അവരെ സ്കൂളിൽ എന്തെല്ലാം നടക്കുന്നത് ഹോം വർക്ക് ഉണ്ടെങ്കിൽ ആ ഹോം വർക്കിനെ പറ്റിയിട്ടും പഠിപ്പിനെ പറ്റിയിട്ടും എല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് നമ്മൾ ഇതാക്കുന്നത് ഉപദേശം കൊടുക്കുമ്പം പിള്ളേർക്ക് ഇഷ്ടമില്ല എന്നാലും നമ്മൾ അവർ ചെയ്യുന്ന ഓരോ ചെ തെറ്റിനെയും കൂട്തൽ അവർക്ക് എടുത്ത് കാണിക്കുന്നത് ഈ ഭക്ഷണം കഴിക്കുമ്പോളാണ് പിന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് പിന്നെ എന്താണ് പറയുക എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കോഴികളുണ്ട് കുറച്ച് ഇതെല്ലാമുണ്ട് അപ്പോൾ ഈ വ് അടുക്കള പണീൻ്റെ ഇടയ്ക്കും എനിക്ക് കോഴികളെ നോക്കണം കോഴികൾക്ക് തീറ്റ ഇടാനും അങ്ങനത്തെ എല്ലാ കുറേ കാര്യങ്ങൾ ഉണ്ട് അപ്പം അടുക്കള പണി മാത്രമല്ല എല്ലാ പണിയും ഒന്നിച്ചുള്ളത് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ചെയ്യും പിന്നെ എന്താണ് പിന്നെ കൂടുതലായിട്ട് എന്താണ് പറയുക